എനിക്കൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് പറയാനുള്ളതെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനിൽ നിന്ന് ഒര് കർട്ടൻ വാങ്ങിച്ചിരുന്നു ഞാൻ അത് വളരെ മോശമെന്ന് ന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാൻ പറ്റുന്നില്ല അത്രയും വളരെ മോശം പ്രോഡക്ട് ആയിരുന്നു കാരണം ഒന്നാമത്തെ കളറ് ഞാൻ ഉദ്ദേശിച്ചത് കളറും സെലക്ട് ചെയ്ത് കളറും ഒരു ലൈറ്റ് ബ്ലൂവായിരുന്നു ഇത് വന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഡാർക്ക് റെഡ് കളറാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അതേപോലെതന്നെ ഇത് ഭയങ്കര ട്രാൻസ്പെരൻറ്റെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മുഖത്തോട്ടൊക്കെ വെട്ടം അടിക്കുമായിരുന്നു അപ്പോൾ നമുക്ക് ആ റൂമിൽ ഒന്നും ഒട്ടും ഇരിക്കാൻ പോലും പറ്റിലാതെ ഉണ്ടായിരുന്നു ഒട്ടും മെറ്റീരിയലൊക്കെ ഭയങ്കര മോശമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചീപ്പായിരുന്നതുകൊണ്ട് ഞാൻ ഒരിക്കൽ ആ കർട്ടനെടുത്ത് കഴുകുവാൻ വേണ്ടി നോക്കിയപ്പം ആണേൽ ഭയങ്കര കളറൊക്കെ ഫുൾ പോയി ആകെ നാശ കോശമായിട്ട് ഇരിക്കുവാണ് ഇത് ഈ നൂലൊക്കെ പൊന്തി വെറുതെ ആ പൈസ എൻ്റെ വെറുതെ വേസ്റ്റായിരുന്നു ഒട്ടു ഇല്ല രാത്രിയായാലും പുറത്ത് വെട്ടം അടിക്കുന്നതും കമ്പ്ലീറ്റ് ഫുൾ നമുക്കിങ്ങനെ അറിയാൻ പറ്റും അകത്തിരുന്നിട്ടുണ്ടെങ്കില് അതേപോലെ പ്പ അകത്തിരുന്ന് നമുക്കൊന്ന് നമ്മളകത്തിരുന്ന് എന്താ ചെയ്യണമെന്ന് എന്ന് പുറത്തുള്ള ആൾക്ക് അറിയാവുന്ന അത്ര അവസ്ഥയിലായിപ്പോയി ഇപ്പം ഭയങ്കര മോശം പ്രോഡക്റ്റാണ്